ഹൈക്ക് ചെയ്യുന്നതിനായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്നു പറയുമ്പോൾ മെയിനായിട്ടും കാടുകൾ തന്നെയാണ് കാരണം അവിടെ ധാരാളം ജീവികളൊക്കെ കാണാൻ സാധിക്കും ഈ കാട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമെന്നു പറഞ്ഞാൽ ഈ ഇടക്ക് ഞാൻ വയനാട് പോയിരുന്നു വയനാട് മുഴുവനും കാടേരിയകളാണ് അപ്പോൾ അവരുടെ വന്യജീവികളുടെ ശല്യവും വന്യജീവി പാർത്ത പാർക്കുന്ന സ്ഥലങ്ങളും അത് അതുപോലെ ഓരോ സ്ഥലങ്ങളിലുള്ള അരുവികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഈ കാട്ടിനകത്ത് ട്രക്കിങ് എന്നു പറഞ്ഞും ഒരു വലിയൊരു വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനും അ അതിൽ കൂടി പോയായിരുന്നു എനിക്കും അതിൽ കൂടി എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റി പിന്നെ കാടുകളുടെ പ്രത്യേകത എന്നു പറഞ്ഞാൽ ഈ മലയിൽ പോയി സൂര്യാസ്തമയം നമ്മൾ എന്നു പോയാലും കാണാൻ പറ്റും പക്ഷെ ഈ കാടുകളിൽ പോകുമ്പോൾ ഈ ജീവികളും വന്യജീവികളും ഇതൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ പുലികളെയും സിംഹങ്ങളെയും മറ്റു ജീവികളെയൊക്കെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഭാഗ്യം കൂടി വേണം കാട്ടിലേക്കു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മലകളിലൊക്കെ കയറുന്നതിനേക്കാളും എന്തു കൊണ്ടും നല്ലത് ഈ കാടുകളിൽ കൂടിയാണ് വനങ്ങളുടെ ഇടയിലും നല്ല തണൽ കാണും അതുപോലെത്തന്നെ അരുവികൾ കാണും അരുവികളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും പക്ഷെ അത് കുറേ എല്ലാം മനുഷ്യൻ അങ്ങോട്ട് മനുഷ്യനെ കടത്തി വിടാത്ത ഏരിയകളാണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങാൻ സാധിക്കും അതുപോലെത്തന്നെ കുറേ കാഴ്ചകളും വെള്ളച്ചാട്ടങ്ങളും അതുപോലെത്തന്നെ അരുവികളും അരുവികളിൽ നിന്നു വെള്ളം കുടിക്കുന്ന മൃഗങ്ങളും ഇവയെല്ലാം നമുക്ക് നല്ലരീതിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ കാടുകളിൽ കയറുമ്പോൾ തന്നെ ആദ്യമേ നമുക്ക് ഒരു എക്സയ്റ്റ്മെൻ്റ് കാണും ഒരു ആകാംക്ഷ കാണും അപ്പോൾ ഈ ആയ ആകാംക്ഷയിൽ തന്നെ നമുക്കാണെങ്കിൽ ഒരു പേടിയും കാണും അപ്പോൾ നമ്മൾ പേടിച്ചുംകൊണ്ടാണ് കാടുകളിൽ കയറണെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നു പറഞ്ഞ് പക്ഷെ ഒന്നും വലുതായിട്ട് സംഭവിക്കൊന്നുമില്ലാ കുറച്ച് റിസ്കാണ് എങ്കിലും കാടുകളിൽ ജീവികളെയും വന്യമൃഗങ്ങളെയും കാണാൻ സാധിക്കുന്നതാണ് അതുപോലെത്തന്നെ ഈ കാടുകളിൽ നമ്മൾ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളിൽ ഈ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെയാണ് ഇതിന് ഭക്ഷണങ്ങളും എല്ലാം നൽകുന്നത് അപ്പോൾ ഇത് എപ്പോഴുമിതിൻ്റെ വയറ് ഫുള്ളായിരിക്കും അപ്പോൾ മനുഷ്യനെ ആക്രമിക്കുന്നതിനുള്ള സാദ്ധ്യത വളരെ കുറവായിരിക്കും ഈ വിശന്നു വലഞ്ഞു നിൽക്കുന്ന ജീവികൾ മാത്രമേ അപൂർവ്വമായിട്ടും മനുഷ്യനെ ആക്രമിക്കാറുള്ളു അപ്പോൾ ഞാൻ പോയ സമയത്ത് ഞാൻ ആനയെയും മയിലിനെയും അതുപോലത്തന്നെ ചേന്നായയെയും സിംഹത്തിനെയും പുലിയെയും കണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വളരെ നല്ല കാഴ്ച്ചകളായിരുന്നു ആനകളെന്നു പറയുമ്പോൾ ഒരു കൂട്ടമായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നേ സിംഹങ്ങളും പുലികളും ഒറ്റക്കൊറ്റക്കാണ് നടക്കുന്നത്